ഹലോ ഡെലീഷ്യസ് ബേക്കേഴ്സല്ലേ ചേച്ചി ഞാനിവിടെ പാറത്തോടിന്നുള്ളൊരു ഒരു വ്യക്തിയാണ് എനിക്ക് ചേച്ചി ഞാൻ നിങ്ങളേ നന്നായിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യുമെന്നറിഞ്ഞതുകൊണ്ട് ഞാൻ വിളിക്കുന്നതാണ് എനിക്ക് നെക്സ്റ്റ് വീക്കൊരു ട്വൻ്റി സിക്സ്ത്തൊക്കെ ആവുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ വരുകയാണ് അപ്പോള് ചേട്ടനല്ല സോറി അനിയൻ അനിയൻ്റെ ബർത്ത്ഡേ വരികയാണ് അപ്പോള് അതിനുവേണ്ടി ഒരു കേക്ക് ഞാൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത് അടുത്ത ഫ്രീ ആയിരിക്കുമല്ലോ അല്ലേ അടുത്ത ആഴ്ചത്തേക്ക് എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് മതി പക്ഷേ അതിന്റെയകത്ത് ടോപ്പിങ്ങ് കുറച്ച് നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് പോലെയല്ലാതെ കുറച്ച് എന്താ പറയുന്നേ കാർട്ടൂൺ അനിയന് കാർട്ടൂൺ വളരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോള് അങ്ങനത്തെ കുറച്ച് ഫൗണ്ടൻസൊക്കെ വച്ചു ചെയ്യാൻ പറ്റുമോ അവന് അവന് കൂടുതലും ടോം ആൻ ജെറി ആണിഷ്ടം അപ്പോള് അങ്ങനത്തെ ടോം ആൻ ജെറിയുടെ ക്യാരക്ടേഴ്സില് ഫൗണ്ടൻ വച്ചാൽ ഒത്തിരി നന്നായിരിക്കും ഫൗണ്ടന് ഫോണ്ടനാണ് ഞാൻ പ്രിഫെറെയ്യുക പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ ഒരു ഇതുപോലെ ആ എനിക്ക് കേക്ക് ഒരു കിലോയുടെ മതി അത് ജസ്റ്റ് കട്ടിംഗ് സെറിമണിക്ക് വേണ്ടി മാത്രം പിന്നെ അല്ലാതെനിക്ക് കുറച്ച് കേക്ക് പീസ് കേക്ക് പീസൊരു ഒരു ഒരു ത്രീ കെ ജി വരുന്ന അല്ലാതെ കുറച്ചു കട്ട്പീസുകളും കൂടെ എനിക്ക് വേണമായിരുന്നു ആ ചതുരത്തില് ചതുരത്തില് പിന്നെ പിന്നെ ഒരു ഒരു ഹാഫ് ഡസൺ ഒരു സിക്സ് പീസിന്റെയൊരു കപ്പ് കേക്കിൻ്റെ സെറ്റും കൂടെ ചെയ്തുതരാൻ പറ്റുമോ കളറോപ്ഷൻസൊന്നുമില്ല ടോം ആൻ ജെറി തീമിൽ കേക്ക് വേണം എന്നേ ഉള്ളു പിന്നെ എന്തോ ജെറി ജെറി ടോം ആൻ ജെറി രണ്ടും ഇരുന്നോട്ടെ കുഴപ്പമില്ല എങ്ങനെയാണേലും ആ ഒരു തീമിൽ ഇരുന്നാല് മതി അപ്പോള് ഇതിനെല്ലാം കൂടെ ഏകദേശം റേറ്റെന്താ വരുകയെന്നു പറയുമോ ആ ഞാന് ഇടയ്ക്ക് കോൺടാക്ടെയ്തോളാം അപ്പോള് ഇരുപത്തി ആറാം തീയതിയാണ് ഡേറ്റ് എനിക്കൊരു ഇരുപത്തി ആറാം തീയതി വൈകുന്നേരത്തേക്ക് അപ്പോള് ഇരുപത്തിയാറാം തീയതി ഉച്ചയാവുകുമ്പോഴത്തേക്ക് എനിക്ക് കേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ ഹോം ഡെലിവറി ഹോം ഡെലിവറി ഉണ്ടാവുമോ ആ അതു കുഴപ്പമില്ല അത് ഇന്ന് ചാർജ് ഈടാക്കുന്നതില് പ്രശ്നമില്ല എനിക്കൊരു ഉച്ചയ്ക്കൊരു രണ്ടു മണി രണ്ടു രണ്ടു മണി രണ്ടര സമയത്തേക്കെനിക്ക് എത്തിക്കാൻ പറ്റുമോ ഓക്കെ ഞാൻ ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടേക്കാം ഓക്കെ അപ്പോള് എന്തോ ഇല്ലില്ല കപ്പ് കേക്ക് കട്ട് പീസസ് കട്ടിങ്ങിനുവേണ്ടി ഒരു കേക്കും അങ്ങനെ അങ്ങനെയാണിപ്പോള് ഉദ്ദേശിക്കുന്നത് ആ ആ ഓക്കെ അപ്പോള് ഞാൻ ലൊക്കേഷൻ ഞാൻ ഇടയ്ക്ക് ഞാനൊന്നു വിളിച്ചോളാം അന്നേരം റേറ്റിൻ്റെ കാര്യം പറഞ്ഞാല് മതി പിന്നെ അന്നേരം ഞാൻ ലൊക്കേഷനും ഇട്ടേക്കാമേ ഓക്കെ താങ്ക്യു